അതായത് കാഴ്ചക്കാരനും ശില്പവും തമ്മിലുള്ള ബന്ധം വളരെ ഗഹനവും വൈവിധ്യ പൂർണ്ണമാണ് ഒരു ശില്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സംശാസ്പതദയും ആത്മാവും ശില്പി അതിൽ ചേർക്കും കാഴ്ചക്കാരൻ അതിനെ ആസ്വദിക്കുമ്പോൾ ആ സൃഷ്ടിയുടെ ഭംഗിയും സവിശേഷതകളും അനുഭവിക്കപ്പെടുന്നു കലയിൽ നിന്നും ശില്പിയിൽ നിന്നും ഒരു കാഴ്ചക്കാരൻ പ്രതീഷിക്കുന്നത് അവരുടെ വികാരങ്ങൾ ആവിഷ്കാരങ്ങൾ അനുഭവങ്ങൾ തുടങ്ങി വൈവിധ്യങ്ങൾ ആയിരിക്കാം പലരും ആത്മീയമായ പ്രേരിപ്പിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് ചിലർക്ക് ഭൗതികപരമായി സ്വാധീനം ചെലുത്താൻ ആഗ്രഹമുണ്ടാകും എന്തായാലും ശില്പം കാഴ്ചക്കാരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉളവാക്കുന്നു എങ്കിൽ അന്ന് അതിൻ്റെ ലക്ഷ്യം പൂർത്തിയായതു തന്നെ